എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ ഒരു വായിച്ച ഒരു ശ്രീ മുട്ടത്ത് വർക്കി എഴുതിയ ഡാലിയ പൂക്കൾ എന്നൊരു നോവലുണ്ട് ബുക്കുണ്ട് ഒരു പുസ്തകമുണ്ട് അത് വായിച്ച് അതിലെ കഥാപാത്രം ഒരു കൊച്ചു കുട്ടിയാണ് പെൺകുട്ടിയാണ് ആ പെൺകുട്ടി പൂക്കളെയും ആൾക്കാരെയും എല്ലാം പ്രകൃതിയെ ഒക്കെ ഒത്തിരി സ്നേഹിച്ച ഒരു കുട്ടി പെട്ടെന്ന് ഒരു അസുഖം വന്നു മരിച്ചു പോകുന്ന മരിച്ചു പോയിട്ട് ആ ആ കുട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൂ ആ മരിച്ചു പോകുന്നതായ ഒരു ഒരു സാഹചര്യം ഉണ്ടാകുന്നു ആ സാഹചര്യത്തിൽ പെട്ടെന്ന് നമ്മൾ വികാരനിർഭനാകുകയും ഒരു കരയുന്നത് പോലെ ഒരു അവസ്ഥയിലേക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒത്തിരി വളരെ അധികം എൻ്റെ ചെറുപ്പത്തിൽ ഒത്തിരി അധികം എനിക്ക് മാനസികമായിട്ടൊക്കെ എന്നെ എന്നെ എന്നെ എനിക്ക് ഒരു എന്നെ വികാരഭരിതനാക്കിയ ഒരു നോവലാണ് ഡാലിയ പൂക്കൾ അതുപോലെ കുഞ്ഞിക്കൂനൻ എന്ന് പറഞ്ഞ ഒരു കഥയുണ്ട് ഒരു കഥ ഈ കഥയിലെ പ്രധാന കഥാപാത്രമായ ആൾ ഒരു കൂനുള്ള ആളാണ് അദ്ദേഹം ജീവിതത്തിൽ അനുഭവിക്കപ്പെടുന്ന ഓരോ ബുദ്ധിമുട്ടുകൾ ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടെടുക്കുന്ന ബുദ്ധിമുട്ടുകൾ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന സംഘർഷങ്ങളൊക്കെ വായിച്ച് ഒത്തിരി അധികം ചെറിയ പ്രായത്തിൽ വികാരഭരിതനാക്കിയിട്ടുണ്ട്